പൊതുവായിട്ട് നൃത്തത്തിനോട് എല്ലാവർക്കും നല്ല താത്പര്യം ആണ് പിന്നെ പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു പാട്ട് കേട്ടാൽ തന്നെ ഇപ്പോൾ ആളുകൾക്ക് വേഗം ഡാൻസും നൃത്തവും ചെയ്യാനാണ് വേഗം തോന്നുന്നത് ആദ്യകാലത്ത് പിന്നെ പണിയും കൃഷികളും കൃഷികളിലേർപ്പെട്ടിട്ടൊക്കെയാണ് ആൾക്കാർ ജീവിക്കുന്നത് ആ സമയത്ത് പാട്ട് കേൾക്കാനോ നൃത്തം ചെയ്യാനോ ഉള്ളൊരവസരം കിട്ടിയിരുന്നില്ല ഇപ്പോഴാണെങ്കിൽ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിലൂടെ കുറേ തരത്തിലുള്ള ആപ്പുകളിലൂടെയും എല്ലത് വാട്സ്ആപ്പ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് ഇതിലൂടെയൊക്കെ നമുക്ക് ഈ പാട്ടുകൾ കേൾക്കാം നൃത്തങ്ങളാസ്വദിക്കുകയൊക്കെ ചെയ്യാം പാട്ട്കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നൃത്തം ചെയ്യാനൊക്കെ തോന്നുന്നതരം പാട്ടുകളും ഒക്കെയുണ്ട് അതുകൊണ്ടുതന്നെ എല്ലാ ആളുകൾക്കും ഇപ്പോൾ നൃത്തത്തിനോട് നല്ല താത്പര്യം ആയിരിക്കും ഉള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നൃത്തത്തിനോട് നല്ല താത്പര്യമാണുള്ളത് നൃത്തമെന്ന് പറഞ്ഞാൽ നമ്മളേതെങ്കിലും ഒരു പാട്ട് എവിടെ ഫംഗ്ഷനൊക്കെ പോയാൽ നമ്മൾ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നല്ല താത്പര്യം ഒക്കെ തോന്നും അങ്ങനെ അങ്ങനെയാണ് എനിക്ക് നൃത്തത്തിനോടും പാട്ടിനോടൊക്കെ നല്ല ഇഷ്ടം തോന്നുന്നത് അതുപോലെ എല്ലാവർക്കും നമ്മളാളുകളെല്ലാവർക്കും നൃത്തത്തിനോടൊക്കെ താത്പര്യം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്